ഞങ്ങളുടെ സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട് ഒരു വിനോദസഞ്ചാരികൾ വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു ആഴ്ച്ച വരെ വേണമെങ്കിലും നിൽക്കാം മാസങ്ങളോളം വേണമെങ്കിലും വന്ന് താമസിച്ച് വിനോദസഞ്ചാരത്തിന് വന്ന് ഏർപ്പെടാനുള്ള സൗകര്യം ഉണ്ട് അത് പോലെ നമ്മളെ കോവളം കോവളം ബീച്ച് അങ്ങനെയുള്ള സ്ഥലം അതൊക്കെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ ഒത്തിരി മീൻസ്സ് നല്ല ഏ സി റൂമും അങ്ങനെയുള്ള റൂമ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ റൂം റെൻ്റിന് തന്നെ പത്ത് ഇരുപത്തയ്യായിരം രൂപയോളം ലാഫിഷ് ആയിട്ട് ജീവിക്കാം അപ്പം നല്ല ഫുഡും അങ്ങനെയുള്ള അല്ലാതെ അല്ലെങ്കിൽ ഡോമിറ്ററി ആയിട്ടൊക്കെ ആണെങ്കിൽ വന്ന് താമസിക്കുന്നവർക്ക് ആണെങ്കിൽ ഒരു പത്ത് നാന്നൂറ് അഞ്ഞൂറ് രൂപ ഒരു ദിവസം ആകും അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ വെച്ചാൽ അതിന് അത് പോലെ തന്നെ വേറെ സ്ഥലങ്ങളുണ്ട് പിന്നെ ശ്രീ പത്മനാഭ ക്ഷേത്രം ഈ കോവളം കാണാൻ വന്നുകഴിഞ്ഞാൽ അത് അവിടെത്തന്നെ പത്മനാഭ ക്ഷേത്രം ഉണ്ട് പിന്നെ ഇതുണ്ട് എന്തോ കാഴ്ച്ച ബംഗ്ലാവുണ്ട് പിന്നെ ശംഖുമുഖമുണ്ട് ഇങ്ങനെ അവിടെയൊക്കെ തന്നെ അടുത്തടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വിനോദസഞ്ചാരത്തിന് പറ്റിയ സ്ഥലം അതുകഴിഞ്ഞിട്ട് പിന്നെ സഞ്ചാര കോവളം കഴിഞ്ഞ് കോവളത്തുനിന്ന് പിന്നെ നമുക്ക് ശംഖുമുഖം വരാം ശംഖുമുഖത്ത് അവിടെയെല്ലാം കൂടെ താമസിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവിടെ കഴിയും അ കണ്ടു തീരാം ചാൻസുസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അവിടെനിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നെയ്യാർ ഡാമ് നെയ്യാർ ഡാമിൽ വന്ന് കഴിഞ്ഞാൽ ഡാമും അത് അത് അവിടെ അവിടെനിന്ന് അൽപ്പം കേ റ്റി റ്റി സിയുടെ ഈ റൂമ് ഒക്കെ കിട്ടാനുണ്ട് അവിടെയൊക്കെ ആവുമ്പം റൂം താമസ സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പഴ് ആ നമ്മുടെ ഈ മായം പ്രദേശത്തൊക്കെ ആയാലും ഇപ്പോൾ ഇപ്പോൾ വലിയ റസ്റ്റോറൻ്റുകൾ ഒക്കെയുണ്ട് അവിടെ താമസിക്കാം പക്ഷെ അവിടെയൊക്കെ ആണെങ്കി ഒത്തിരി മലകളും കുന്നുകളും വെള്ളച്ചാട്ടവും അപോലെ നല്ല ആറും ഇനി നെയ്യാർ ഡാമിൻ്റെ ആറൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്ന ഹോ എന്തു രസമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് കാണണം ശരിക്കും ഈ കോവളം അവടെയൊക്കെ കാണുന്നതിനെക്കാളും ഒത്തിരി ഭംഗിയുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടെയെല്ലാം വന്ന് കാണുകയാണെങ്കിൽ ഈ കൊച്ചു കൊച്ചു കുന്നുകൾ മലകൾ അങ്ങനെ കൊണ്ടകെട്ടിമല എന്നു പറയും അവിടെയാണ് ട്രക്കിങ്ങിനൊക്കെ നല്ല സൗര്യവും ഉണ്ട് നല്ല ഭംഗിയാ അവിടെയൊക്കെ കാണാൻ അതിൻ്റെ മണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂവായിരം പിന്നെ കടൽ കടൽനിരപ്പിൽ നിന്നും പിന്നെ മൂവായിരം കിലോമീറ്റർകൾ ഉയരത്തിലാണ് ഈ കൊണ്ടകെട്ടി എന്ന് പറയുന്ന സ്ഥലം ഒക്കെ അയ്യോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ നല്ല പ്രകൃതി സൗന്ദര്യമാണ് ആസ്വദിച്ച് ശരിക്കും അവിടെയൊക്കെ വന്ന് കാണേണ്ടത് തന്നെയാണ് അതിന് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഒത്തിരി അവരെയും അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി നടത്തണം അത് പിന്നെ ഡാമിലൊക്കെയാണെങ്കിലും ഇവിടെ ഒത്തിരി ഷൂട്ട് ബോട്ട് ഒക്കെയുണ്ട് ബോട്ട് ഒക്കെ പോയി നമുക്ക് എത്രയോ കിലോമീറ്റർ വരെ ഒക്കെ അങ്ങ് കാടിന് അകത്തൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കുമ്പോൾ ആ കാട്ടിലൂടെ ഈ ഈ ഇതിലെ ഇത് വഴി അങ്ങ് പോകാം ഈ റോഡെ തന്നെ പോയി അങ്ങ് ചെന്ന് ഒത്തിരി ദൂരെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ നല്ല വനമാണ് വനത്തിൽ നല്ല പച്ചപ്പ് പിടിച്ച നല്ല വനം കാട് അവിടെ മൃഗശല്യങ്ങളൊന്നും നമ്മുടെ ഈ പ്രദേശത്തിൽ ഒത്തിരി ദൂരേയൊക്കെ പോയാലേ ഉള്ളൂ ഇവിടെ വിനോദസഞ്ചാരത്തിന് വരുന്ന ഇവർക്ക് ആണെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല നല്ല രസമാണ് കാണാനൊക്കെ നല്ല മലകളും കുന്നുകളും നല്ല വെള്ളം ഒഴുകി വരുന്ന അരുവികളും ഇങ്ങനെ നെയ്യാർ ഡാമിൻ്റെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ ചെലവ് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ ബോട്ടിങ്ങിന് ചെലവുണ്ട് പത്ത് ആറ് പക്ഷെ നമ്മൾ ഒത്തിരി പേർ കൂടിയൊക്കെ വരുകയാണെങ്കിൽ അവർക്ക് പത്ത് നേരത്തെ ഒക്കെ ഇച്ചിരെ കൂടെ കൂറവായിരുന്നു ഇപ്പം ഇപ്പം കോസ്റ്റ്ലി പൈസയൊക്കെ കൂടുതലായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി എല്ലാത്തിനും ചാർജ് കൂടിയില്ലേ അതുകാരണം എന്നാലും അങ്ങനെയൊക്കെ വരുമ്പഴത്തേനും ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ നല്ലപോലെ സുന്ദരമായിട്ട് ഒരാഴ്ച്ചയൊക്കെ നല്ലപോലെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാനൊക്കെ പറ്റും കോവളം ആ ഭാഗത്തൊക്കെ ആണ് നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ലാഫിഷ് ആയിട്ട് ജീവിക്കണ്ടവർക്ക് ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആകും അല്ലെങ്കിൽ കുഴപ്പം മറ്റേ അവിടെയാണ് കോവളം ഒക്കെ ആണെങ്കിൽ കോവളം പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ ഇത് ഇത് ശാന്തഗിരി അതൊക്കെയുണ്ട് നല്ല രസമാണ് അവിടയെല്ലാം കാണാനും ലോട്ടസ് ടെംപ്ലിൻ്റെ ആകൃതിയിലൊക്കെ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പറ്റുന്നവരെല്ലാം വരണം ഞങ്ങളുടെ കോസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഒത്തിരി കൂടുതൽ ആവത്തില്ല ഈ അവിടെയൊക്കെ ആവുമ്പഴത്തേനും പത്ത് ഒത്തിരി ലാവിഷ് ആയിട്ട് ജീവിക്കണമെങ്കിൽ രണ്ട് ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആവും അല്ലാത്തവർക്ക് ആണെങ്കിൽ ഒരു പത്തും നാന്നൂറ് രൂപയ്ക്ക് ഒക്കെ ഒരു ദിവസം റൂം റെൻ്റ് ഒരു ദിവസം അങ്ങനെയൊക്കെ കിട്ടും ആ പിന്നെ ചെലവും എല്ലാം ഉണ്ട് കുഴപ്പം ഇല്ല നല്ല